ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ ഭയങ്കര വ്യത്യസ്ത തരമായുള്ളൊരു ഭാഷയാണ് കാരണം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ നമുക്ക് പോയിട്ട് ഹിന്ദി സംസാരിക്കണം അല്ലെങ്കിൽ വേറേതെങ്കിലും ഇംഗ്ലീഷ് പൊതുവെ അവർക്ക് അറിവ് കുറവാണ് സാക്ഷരത വിദ്യാഭ്യാസം കുറവാണുള്ളത് ഹിന്ദിയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഹിന്ദി അറിഞ്ഞാൽ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാനും അങ്ങനെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബസ്സിൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ തന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാലെ നടക്കൂള്ളു കാരണം എവിടേയും പോകുവാൻ പറ്റില്ല പിന്നെ ഭാഷ പിന്നെ എന്താ വച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഭക്ഷണം നമ്മളെ അതായത് നമ്മുടെ നാട്ടിലെ നമ്മളെ താഴെ നാട്ടിലെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളാണ് നല്ലത് പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ വയറു വേദനയും കാര്യങ്ങളൊക്കെ വരും പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും നമുക്ക് അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പിടിക്കില്ല വൃത്തിഹീനമായിട്ടുള്ളൊരു ഭക്ഷണമാണ് അവിടെയുണ്ടാക്കുന്നത് ഈ ബജ്ജി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഛർദ്ദിക്കാൻ വരും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ അവിടുത്തെ വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒരു എന്താ പറയുക ആദിവാസി സ്ത്രീകൾ വസ്ത്രം ഉടുക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചൂട് കൂടുതലാണ് നമ്മുടെ ഇവിടുത്തെ പോലെ എന്താ പറയുക തണുത്ത കാലാവസ്ഥയൊന്നൊന്നുമില്ല പിന്നെ അങ്ങ് മേലേക്കെന്നു പറഞ്ഞാൽ ജമ്മു കാശ്മീർ ആ ഭാഗത്തേക്കൊക്കെ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് അവിടെ പ്രത്യേകിച്ച് ചൂടെന്ന് പറഞ്ഞ ഒരു സംഭവം എന്താ പറയുക കുറവാണ് ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ രാഷ്ട്രീയവും അത്യാവശ്യം നല്ല രീതിയിലാണ് ഉള്ളത് ബി ജെ പിയാണ് ഇപ്പോഴത്തെ മുന്നിൽ നിൽക്കുന്നത്